കേരളത്തിലെ മാധ്യമങ്ങളിൽ മലയാള മാധ്യമങ്ങളിൽ പലപ്പോഴും നിരവധി സോഷ്യോ കൾച്ചറൽ ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടാറുണ്ട് പക്ഷെ ചെയ്യ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ സമൂഹത്തിന് ഇടയിൽ പലപ്പോഴും മതപരമായ ചേരിതിരിവ് ഉണ്ടാകത്തക്ക വിധത്തിൽ പല ചർച്ചകളെയും ചർച്ചകളും കടന്നു പോകാറുണ്ട് അതുപോലെത്തന്നെ ഏതൊരു വൈകുന്നേരങ്ങളിൽ പല പല ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിൽ ഉണ്ടാവുന്ന വൈകുന്നേരങ്ങളിലെ ചർച്ച ഒരു മണിക്കൂർ ചർച്ച ചർച്ചകളിൽ പലപ്പോഴും മത സോഷ്യോ കൾച്ചറൽ ഇഷ്യൂസ് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് അവസാനം അതിനൊരു പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് എത്താതെ അവർ അതിനൊരു കൺക്ലൂഷൻ കണ്ടു പിടിക്കാതെ അല്ലെങ്കിൽ കാണാതെ ചർച്ച മുന്നോട്ട് വെക്കാതെയാണ് പലപ്പോഴും ചർച്ചകൾ അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള പലകാര്യങ്ങളും അവർ പലപ്പോഴും പല അതിൻ്റെ ചില കാര്യങ്ങൾ എങ്കിലും ഒക്കെ മറച്ചു വെച്ച് കൊണ്ടാണ് പലപ്പോഴും സംസാരിക്കപ്പെടുക ആരോ ചിലപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും ആൾക്കാരെ അവരെ വിളി വിളിച്ചിട്ട് ചിലർക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ അവർ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇനഫ് ടൈം അവർക്ക് കിട്ടുന്നില്ല ഒരാളുടെ എക്സ്പ്ലനേഷൻ പരമാവധി ആകുന്നതിനു മുൻപ് തന്നെ അദ്ദേഹത്തെ കട്ട് ചെയ്യുക അങ്ങനെ അതുപോലെത്തന്നെ സോഷ്യൽ വിഷയം സോഷ്യൽ വിഷയങ്ങൾ കുട്ടനാടിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സമൂഹത്തിനുള്ള ഒരു ഏറ്റവും ഞങ്ങളുടെ ഇവിടെ കുട്ടനാടിനെ സംബന്ധിച്ച് ഒരു സമൂഹത്തിന് ഒരു വെല്ലുവിളിയാണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നത്തിലേക്ക് പലപ്പോഴും ഒരു ചർച്ച കൊണ്ട് വരും പിന്നെ നിർത്തും പിന്നെ അതിനെക്കുറിച്ച് ഒരു ചർച്ച പിന്നീട് ഒരു സംസാരവും ഉണ്ടാകത്തില്ല അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല കാലങ്ങളായിട്ട് കുട്ടനാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുണ്ട് എറണാകുളത്തുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം അത് അതൊരു സോഷ്യൽ പ്രോബ്ലമാണ് സമൂഹത്തിൻ്റെ ഒരു മെയിൻ ഒരു പ്രശ്നമാണ് ഞാൻ മനുഷ്യനു വേണ്ടതല്ലേ ബെയിസിക്ക് നീഡ്സ് ആണല്ലോ വെള്ളം കുടിവെള്ളമൊരു ബെയിസിക്ക് നീഡ് തന്നെയാണ് മനുഷ്യൻ്റെ അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച തുടങ്ങി വെക്കും പിന്നെ ഇല്ല കുറച്ചു നാളത്തേക്ക് മിണ്ടത്തില്ല വീണ്ടും ചിലപ്പോൾ ആറുമാസവും ഒരു വർഷവും കഴിഞ്ഞു വീണ്ടും ഒരു ചർച്ച വെക്കും എന്നല്ലാതെ അതിനു നിരന്തരമായ ഒരു സൊല്യൂഷൻ ഇവിടുത്തെ രാഷ്ട്രീയ അധികാരികളെക്കൊണ്ട് എടുപ്പിക്കാനൊന്നും ഇവർക്ക് സാധിക്കാറില്ല അല്ലെങ്കിൽ അങ്ങനെ മെനക്കെടാറില്ല ഇപ്പോൾ വിഷയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് പിന്നെ പിന്നെ ഇല്ല പിന്നെ എവിടെയും ആ വിഷയം അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോകുന്നതായിട്ട് ആണ് കാണപ്പെടുന്നത് കളയും പിന്നെ സാമൂഹ്യമായിട്ടുള്ള സൗഹൃദവും റിലീജിയസ് റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആ ഒരു ചെറിയ എവിടെയെങ്കിലും ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അനാവശ്യമായിട്ട് ഉയർത്തിക്കാട്ടുകയും അനാവശ്യ ചർച്ചകൾ കൊണ്ടുവരികയൊക്കെയാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ചർച്ച അവരുടെ ഓരോ ചാനലുകളും അവരുടേതായ അവരുടെ ഭാഗങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു കൊണ്ടാണ് എപ്പോഴും സംസാരിക്കുക ഓരോ ചാനലുകൾ എടുത്താലും അതുകൊണ്ട് ഇതിൻ്റെ ഉയർത്തി കാട്ടുന്ന വിഷയങ്ങളെ കുറിച്ചൊരു അതിന് അവർക്കൊരു വ്യക്തമായ എന്താ പറയുക അവർ അവരുടേതായ വശങ്ങൾ മാത്രമാണ് അതിനെക്കുറിച്ച് പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം